ഞാനൊരു ഫോണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈനായിട്ട് മേടിച്ച് രണ്ട് ദീസത്തിനുള്ളിൽ തന്നെ ഫോണ് വീട്ടിലെത്തി പറഞ്ഞതിലും പെട്ടന്ന് തന്നെ ഫോണ് വീട്ടിലെത്തി ഞാന് ഫോണ് തുറന്ന് നോക്കിയപ്പോൾ നല്ല ഡിസൈനാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡറ് ചെയ്ത അതെ ഇതായിരുന്നു എനിക്ക് നന്നായി ഇഷ്ട്ടപ്പെട്ടു ഫോണ് കണ്ടപ്പം തന്നെ പിന്നെ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ചാർജ്റ് ഹെഡ്സെറ്റ് അതേപോലെ എല്ലാം ഉണ്ടായിരുന്നു ചാർജുണ്ടായിരുന്നു ഒരു അമ്പത് പെർസെന്റജിന്റെ അടുത്ത് ചാർജുണ്ടായിരുന്നു ഞാനത് കുത്തിവച്ച് പിന്നെയും നൂറാക്കിയിട്ടാണ് യൂസ് ചെയ്തത് നല്ല ബാക്ടറി ബാക്ക് അപ്പ് തരുന്നുണ്ട് അതേപോലെ ഡിസ്പ്ലേ വൺ ട്വന്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പഴയ ഞാനൊരു പഴയ ഫോൺ യൂസ് ചെയ്തതിൽ വച്ച് എനിക്ക് നന്നായി തോന്നി അത് അറുപത് ഹെഡ്സിൻ്റെ ആയിരുന്നു അതുകൊണ്ട് തന്നെ റീഫ്രഷ് റേറ്റ് അതിൽനിന്ന് വ്യത്യാസമായത് കൊണ്ട് തന്നെ എനിക്ക് നന്നായി ഫീല് ചെയ്തു അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും നല്ലൊരു ഫോണായിരുന്നു അതേപോലെ അപ്പോൾ ഞാനത് ക്യാമറ ഓണാക്കി എൻ്റെ സെൽഫി എടുത്ത് നോക്കി അതേപോലെ ബാക്ക് ക്യാമറ ഓൺ ആക്കി ഫോട്ടോ എടുത്ത് നോക്കി പോർട്രൈറ്റ് മോഡിലും എല്ലാ മോഡിലും ഞാൻ ഇട്ട് നോക്കി ഫോട്ടോ എടുത്ത് നോക്കി നല്ല ഫോട്ടോ ആയിരുന്നു ഇഷ്ട്ടപ്പെട്ടു ബ്ലർറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷേക്ക് ആവുകെ അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി ഇഷ്ട്ടപ്പെട്ടു നല്ല സ്മൂത്തും ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ നല്ലൊരു ഫോണായിട്ടെനിക്കത് തോന്നി നല്ല ഫീല് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഫോണിനെ